ഇപ്പോൾ എനിക്ക് സഹോദരനും സഹോദരിയും ആയിട്ട് ഒരാളെ ഉള്ളു അപ്പോൾ എന്താ പറയാ സഹോദരിയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വ്യത്യാസംന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ സാമ്യതകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കൊക്കെ ഒരേ രീതിയിലാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരേ അണ്ടർസ്റ്റാൻഡിലാണ് മുന്നോട്ട് പോവാറ് പിന്നെ വ്യത്യാസങ്ങളെന്നൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാരണം ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ട് പിന്നെ അവളാണേൽ എന്നും വീട്ടിൽ അമ്മേടേം അച്ഛൻറ്റേയൊരു പെറ്റ് ആയിട്ട് മുൻപിൽ പോവുന്നത് അപ്പോൾ നമ്മളെ മൂത്തകുട്ടി ആയതുകൊണ്ടുതന്നെ നമുക്ക് വലിയ എന്താ പറയാ മുൻഗണന ഉണ്ട് എന്നാലും അവൾക്ക് ലഭിക്കുന്ന പോലെ കൂടുതൽ കിട്ടാറൊന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ അവൾ ഇപ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ അതിൻറ്റേതായ രീതിയിൽ വീട്ടുകാരൊക്കെ നല്ല രീതിക്കന്നെ ഹെല്പ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവൾ അവളുടേതായ കാര്യങ്ങൾക്കൊക്കെ കൂടുതലും വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാനായിട്ടിപ്പോൾ കൂടുതലും വീട്ടുകാരായിട്ടൊന്നും അങ്ങനെ ഇതാക്കാൻ പറ്റില്ല കാരണം നമുക്കത്യാവശ്യം പ്രായോം ഇതൊക്കെ ആയതുകൊണ്ടുതന്നെ നമ്മൾ നമ്മുടെതായ രീതിയിൽ മുന്നോട്ട് പോവാറാണ് സാധാരണ പതിവ് ഇതൊക്കെയാണ് ഇപ്പോൾ എൻറ്റെ വീട്ടിലെ സാധാരണ ഞാനും എൻറ്റെ പെങ്ങളുമായിട്ടുള്ള കൂടുതലായിട്ട് വരുന്ന വ്യത്യാസം പിന്നെ അവൾ പഠിക്കാൻ അത്യാവശ്യം നല്ല കുട്ടിയാണ് നമ്മൾ അങ്ങനെ അല്ലായിരുന്നു അതിൻറ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്